പതിന്നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത് നാല് രണ്ടായിരത്തി ഇരുപത് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന്